എനിക്ക് താല്പര്യമുള്ള കുറേ സ്ഥലങ്ങളുണ്ട് റോഡ് ട്രിപ്പ് പോകാനായിട്ട് കൂടുതലും എനിക്കിഷ്ടം ഒരഞ്ച് റൂട്ടുകള് ഞാൻ പറയാം ഒന്ന് വാൽപ്പാറൈ ടു ആതിരപ്പള്ളി അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരെഴുപത് കിലോമീറ്റർ ദൂരമുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് എനിക്ക് ഒരുപാട് പോകാന് താല്പര്യമുള്ള ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പിന്നെ വാഗമൺ ടു കുമളി അതും ഇതേപോലെയൊരു ബൈക്ക് റൈഡിംഗ് ഏകദേശം ഒരു അമ്പത്തിയാറ് കിലോമീറ്ററൊക്കെ കാണുമായിരിക്കും അതും ബൈക്ക് റൈഡിങ്ങിനൊക്കെ പറ്റിയ പോകാന് ആഗ്രഹമുള്ളൊരു സ്പോട്ടാണ് പിന്നെ അതേപോലെ മാനന്തവാടി ടു കക്കാവയൽ അവിടെ പോകാനും ഒരു മൂന്നാമത്തെ സ്പോട്ടായിട്ട് ഞങ്ങള് സെലക്ട് ചെയ്തുവെച്ചിരിക്കുകയാണ് പോവുകയാണെങ്കിൽ ബൈക്ക് റൈഡിങ്ങില് അതൊരു ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് കിലോമീറ്റേഴ്സ് ഉണ്ടാകും അതുപോലെ തന്നെ വേറെയൊരു ഞങ്ങള് നോക്കിവെച്ചിരിക്കുന്ന ഒരു റൂട്ട് മൂന്നാർ ടു ആനമലൈ അതൊരു റൂട്ട് പോകാൻ പറ്റിയയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അതും ഒരു ഏകദേശം ഒരു എൺപത്തിയൊമ്പത് കിലോമീറ്ററൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങള് വേറെയൊരു അങ്ങനെ ഒരു അഞ്ച് റൂട്ടുകളില് ലാസ്റ്റ് റൂട്ട് ഒരു കുമിളി ടു സുറനൽവേരി അതാണ് ഞങ്ങള് പിന്നെ അഞ്ചാമത്തെയൊരു ഓപ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്തുവെച്ചിരിക്കുന്നത് അപ്പം ഏകദേശം ഒരു നൂറ് നൂറ്റിയൊന്ന് കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത്രയും ഈയൊരു അഞ്ച് റൂട്ടുകളാണ് ഞങ്ങളിപ്പോള് ഏകദേശം സെലക്ട് ചെയ്തുവെച്ചിരിക്കുന്നത് ബൈക്ക് റൈഡ് പോവുകയാണെങ്കിൽ തന്നെ അതിലിപ്പോള് ഏറ്റവും കൂടുതല് താല്പര്യം കുമിളി ടു മൂന്നാര് തന്നെയാണ് അത് പോകുമ്പോള് നമ്മള് കമ്പം വഴി തേനി ടച്ച് ചെയ്തിട്ടാണ് മൂന്നാറിലേക്ക് പോവുക എവിടെ നമ്മളിപ്പോള് പോകുമ്പോഴും പോകുന്ന വഴിക്ക് കുറേ റെസ്റ്റെടുത്തും ഫുഡൊക്കെ കഴിച്ചും പോകുന്ന വഴികളെല്ലാം നല്ലതുപോലെ ആസ്വദിച്ചും എക്സ്പ്ലോർ ചെയ്തിട്ടും തന്നെയാണ് പോകാറുള്ളത് ബൈക്ക് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും അത് എൻജോയ് ചെയ്തിട്ടുതന്നെ പോകാൻ പറ്റിയയൊരു സംഭവം തന്നെയാണ് അല്ലാത്തവർക്ക് പാക്കേജൊക്കെയായിട്ട് ട്രിപ്പായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് സോളോ ട്രിപ്പാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഫാമിലി ആയിട്ട് പോവുകയാണെങ്കില് തീർച്ചയായും ബൈക്ക് റൈഡിങ് പറ്റില്ല കപ്പിൾസായിട്ടോ അല്ലെങ്കില് സോളോ റൈഡിങ് ഒക്കെയാണെങ്കില് ബൈക്ക് ട്രാവലിംഗ് കുറച്ചുംകൂടി നന്നായിരിക്കും ഫാമിലിയായിട്ട് പോകുമ്പോള് കൂടുതലും ത്രൂ ട്രെയിനോ കാറോ ഒക്കെയെ ഈ പറഞ്ഞ അഞ്ച് റൂട്ടും പറ്റുകയുള്ളൂ പക്ഷെ ബൈക്ക് റൈഡിങ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു അഞ്ച് റൂട്ടുകളാണ് ഞാനിപ്പോള് ഈ പറഞ്ഞത് കറച്ചും കൂടി ഈ അഞ്ച് റൂട്ടില് പോകാൻ താല്പര്യം മൂന്നാര് റ്റു കുമിളിയാണ് അങ്ങനെ താല്പര്യമുള്ള അഞ്ച് റൂട്ടുകളാണ് ഞാൻ പറഞ്ഞത്